ഹലോ ആ റോളക്സ് റെസ്റ്റോറൻറ്റ് അല്ലേ ഞാനവിടുന്ന് കുറച്ച് മുന്നേ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് ആ ബിരിയാണിയും കുറച്ച് സാധനങ്ങളും അല്ല അതിന് കുഴപ്പം ഒന്നും ഉണ്ടായിട്ട് വിളിക്കുന്നതല്ല ആ അത് കൊണ്ടുത്തന്നു കൊണ്ടുത്തന്നു നമ്മളത് കഴിച്ചു അപ്പം കഴിച്ചപ്പോൾ നല്ല ഭക്ഷണമായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊന്ന് വിളിച്ച് ഒന്ന് പറയാം എന്ന് കരുതി ആ അതെ അതെ അതെ അതെ അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എന്താണ് പറയുക നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയാം എന്നെനിക്ക് ഇതിൽ നിന്നും മനസ്സിലായി അപ്പം വലിയ എന്താണ് പറയുക വലിയതല്ല നല്ല അത്യാവശ്യം നല്ല നല്ലൊരു ഫുഡ് ആണത് ആ അതെ അതെ അ അത് അതിപ്പോൾ കറക്റ്റ് സമയത്ത് എനിക്കിപ്പോൾ ഞാൻ പത്തേമുക്കാലിന് ഞാന് എത്തും എന്ന് പറഞ്ഞു കറക്റ്റ് എനിക്ക് പത്തേമുക്കാൽ ആയപ്പോൾ തന്നെ ഫുഡ് എനിക്ക് എത്തിച്ചു തന്നു അവർ ആ അതെ അതെ ആ ഡെലിവറി ബോയ്ക്കും എൻ്റെ ഒരു അഭിനന്ദനം ഉണ്ട് കേട്ടോ അല്ല ഫുഡ് ഇത്രയും ഞാൻ നന്നാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ സാധാരണ ഓർഡർ ചെയ്തിട്ട് എനിക്ക് ഇത്ര നല്ലൊരു ഫുഡ് ഇതേവരെ കിട്ടിയിട്ടില്ല ആ അതെ അതെ അതെ ആ ആ അത് സാധാരണ ഞാൻ ഇപ്പോൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്തുകഴിഞ്ഞാൽ എനിക്ക് റൈസ് കുറച്ചായിരുന്നു കിട്ടുക പക്ഷേ ഇതിനകത്ത് റൈസും അത്യാവശ്യം കൂടുതലുണ്ടായിരുന്നു പിന്നേ മറ്റേ ഇതും നമ്മുടെ ചിക്കനും കുറച്ച് കൂടുതലൊക്കെയുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം എനിക്ക് നല്ല രീതിയിൽ കഴിക്കാനും പറ്റി ആവശ്യത്തിന് നല്ല എനിക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനും പറ്റിയായിരുന്നു അതെ അതെ അതെ ആ ആ അടിപൊളി ഫുഡ് ആണ് ഒരു രക്ഷയും ഇല്ല പിന്നെ എന്താണ് പറയുക നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡ് ആണ് ആ അതെ അതെ ആ ഓക്കേ വേറെ ചീത്തത് എന്ന് പറയാൻ വലിയ ഇതൊന്നുമില്ല നല്ല നല്ലൊരു ഫുഡ് ആണ് ആ അതെ ആ ഓക്കേ ഓക്കേ ഓക്കേ ശ് ഓക്കേ